കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങള് ഞാൻ ഒരാൾക്ക് ആൾ പലർക്കും സമ്മാനിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിന് കാരണം എന്താന്നു വെച്ചാൽ നമ്മളുണ്ടാക്കുന്നത് നമുക്കൊരു മൂല്യം തന്നെയാണ് നമ്മള് സ്വന്തം സ്വന്തമായിട്ട് ഒരു പൂവുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെക്കെ ഉണ്ടാക്കുവാണെങ്കില് അത് നമ്മുടെ ഒരു മൂല്യമാണ് നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മള് നമുക്കിഷ്ടപ്പെട്ടൊരാൾക്ക് നമ്മള് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം അപ്പം എന്നത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുവാണെങ്കില് അത്രയും ഒരു സന്തോഷം അത് അതിലേറെ സന്തോഷായിരിക്കും നമ്മുടെ കയ്യും കൊണ്ട് ഉണ്ടാക്കുക നമ്മള് വാങ്ങി കൊടുക്കുന്നതിനേയും കാട്ടിൽ സന്തോഷമായിരിക്കും നമ്മള് കയ്യും കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നതില് അപ്പോൾ പൂവായാലും അതുപോലെ തന്നെ ഗ്രീറ്റിങ് കാർഡുകളായാലും ഒരു ചിത്രം വരച്ചു കൊടുക്കുവാണെങ്കിലും നമുക്ക് അതിൽ നമുക്ക് സന്തോഷമായിരിക്കും അതിലേറെ അവർക്കും സന്തോഷമായിരിക്കും അത് വാങ്ങിക്കുന്ന ആൾക്കും വളരെയേറെ സന്തോഷമായിരിക്കും അത്കൊണ്ട് തന്നെ കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങള് അതുങ്ങൾക്ക് ഭയങ്കര ഒരു മൂല്യമായിരിക്കും അവരത് എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കും